ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ആതിരപ്പള്ളി വാഴച്ചാൽ ഇതൊക്കെയാണ് പിന്നെ മൂന്നാർ പിന്നെ കുറേ ടെമ്പിൾസ് ഉണ്ട് അവിടെ ഒക്കെ പോവാൻ വേണ്ടി ദൂരെ സ്ഥലത്തുനിന്ന് പോലും വരുന്നതാണ് ആതിരപ്പള്ളി വാഴച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളച്ചാട്ടം ആണിതിൻ്റെ പ്രധാനപ്പെട്ട ഒരിത് അതിൽ ഡേഞ്ചറസും ആണ് എന്നാൽ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടങ്ങളാണ് രണ്ടും ആതിരപ്പള്ളിയാലും വാഴച്ചാലായാലും മൂന്നാർ എന്ന് പറഞ്ഞാൽ തണുപ്പ് നമുക്ക് ടീ എസ്റ്റേറ്റ് ആണ് അവിടെ തണുപ്പ് കാലത്ത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചൂട് കാലത്ത് നമുക്ക് സ് പോവാൻ പറ്റിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ അതുപോലെ കുറേ അമ്പലങ്ങളും ഉണ്ടിവിടെ മേയിൻ ആയിട്ടുള്ളത് ചോറ്റാനിക്കര അവിടെ ഒക്കെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ വളരെ പ്രാധാന്യം ഉള്ളതാണ് അതുപോലെ തിരുവൈരാണിക്കുളം ക്ഷേത്രം അവിടെ എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം വർഷത്തിൽ പത്ത് ദിവസം മാത്രം ഉള്ള ഒരു നടതുറപ്പ് മഹോത്സവമുണ്ട് അതിൽ ബന്ധുക്കൾ എല്ലാവരും ഓരോ വീടുകളിൽ നിന്നൊക്കെ വന്നിട്ടിവിടെ താമസിച്ച് ഒരു പ്രത്യേക ഡ്രസ്സ് കൊഡ് ഒക്കെ തീരുമാനിച്ച് അങ്ങനെ പെൺകുട്ടികളൊക്കെ ഒത്ത് കൂടി അങ്ങനെ എല്ലാവരും കൂടെ പോകുന്ന ഒരു അമ്പലം ആണത് പ്രത്യേകിച്ച് വിവാഹം കഴിയാത്ത പെൺകുട്ടികൾക്ക് അവിടെ പറ കഴിക്കൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു വഴിപാടുകളൊക്കെ പ്രധാനമായിട്ട് നടക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ പോവാൻ ഏറ്റവും നല്ലത്